തമസോമാ ജ്യോതിര്ഗമയ അസതോമാ സദ്ഗമയ മൃത്യോർമാ അമൃതം ഗമയ അതായത് തമസ്സില് നിന്നും പ്രകാശത്തിലേക്ക് അസത്യത്തില് നിന്നും സത്യത്തിലേക്കും മരണത്തില് നിന്നും മരണമില്ലായ്മയിലേക്കും നയിക്കുക എന്നാല് തമസ്സ് തമസ്സിന് ഒരുപാട് അര്ത്ഥങ്ങളുണ്ട് ഇരുട്ട് നമ്മുടെ ഹൃദയത്തിലെ ഇരുട്ട് മാറ്റി നാം പ്രകാശത്തിലേക്ക് പോകണം നമ്മുടെ ഹൃദയത്തിലെ ഇരുട്ടെന്ന് പറഞ്ഞാല് നമ്മുടെ പാപങ്ങള് പാപത്തില് നിന്നും പാപമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോള് തീര്ച്ചയായും മനുഷ്യന് അവന്റെ ഹൃദയത്തെ വെടിപ്പാക്കി അവന് പ്രകാശത്തിലേക്ക് നയിക്കപ്പെടും പാപത്തിന്റെ ആ അന്ധകാരം നീക്കി മനുഷ്യനെ പ്രകാശത്തിലേക്ക് നയിക്കുക എന്നത് തന്നെയാണ് തമസോമാ ജ്യോതിര്ഗമയ എന്നതിന്റെ അര്ത്ഥം അസതോമാ സദ്ഗമയ അസത്യത്തില് നിന്നും സത്യത്തിലേക്ക് തീര്ച്ചയായും ഈ ലോകം അസത്യത്താല് നിറഞ്ഞിരിക്കുന്നു സത്യമില്ലായ്മ എവിടെയും മനുഷ്യനെ അധപതിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് കള്ളം പച്ചക്കള്ളം പറയുക കള്ളത്തില് മനുഷ്യനെ കുടുക്കുക ഇതൊക്കെ അപ്പോള് സത്യത്തില് നിന്ന് സത്യത്തിലേക്കുള്ള പാത വെട്ടി തുറക്കുന്നത് തന്നെയാവണം നമ്മുടെ ജീവിതം അതാണ് അസതോമാ സദ്ഗമയ പിന്നീട് മൃത്യോർമാ അമൃതം ഗമയ അതായത് മരണത്തില് നിന്നും മരണമില്ലായ്മയിലേക്ക് മരണത്തില് നിന്നും പുനരുദ്ധാനത്തിലേക്ക് മനുഷ്യന് നയിക്കപ്പെടണം മരണമെന്നത് ഒരു മനുഷ്യനെ പാപത്തിലെ മനുഷ്യന്റെ അധപതിച്ച അവസ്ഥയാണ് മനുഷ്യൻ എല്ലാ തരത്തിലും നിര്ജ്ജീവമാക്കപ്പെടുന്ന അവസ്ഥ ആ നിര്ജ്ജീവമാക്കപ്പെടുന്ന അവസ്ഥയില് നിന്നും മനുഷ്യനെ ജീവൻ ഉള്ളവനാക്കി മാറ്റുവാന് മനുഷ്യന്റെ എല്ലാ പാപങ്ങളും എല്ലാ തിന്മകളും മനുഷ്യനെ ഇല്ലാതാക്കണം മനുഷ്യന് ആ തിന്മകള് ഇല്ലാതാകുമ്പോള് തീര്ച്ചയായും മനുഷ്യന് ഒരു പുതിയ പുതിയ ഒരു മനുഷ്യനായി മാറും അങ്ങനെ മാത്രമേ അവന് മരണത്തില് നിന്നും ഒരു മരണമില്ലായ്മയിലേക്ക് നയിക്കപ്പെടുവാന് അവന് സാധിക്കുകയുള്ളൂ മനുഷ്യനെ എല്ലാ തരത്തിലും അധപതിപ്പിക്കുന്ന ഈ മരണമെന്ന പാപത്തിന്റെ ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ എല്ലാ മനുഷ്യന്റെ എല്ലാ ചീഞ്ഞളിഞ്ഞ അവസ്ഥയില് നിന്നും മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന ദൈവതുല്യൻ ആക്കുന്ന അവസ്ഥയാണ് മരണമില്ലായ്മ ആ മരണമില്ലായ്മയിലേക്ക് പോകുവാന് ഏതൊരു മനുഷ്യനും സാധിക്കണമെങ്കില് അവനിലെ പാപങ്ങളെ അവന് മറക്കണം അവന്റെ നിര്ജ്ജീവമായ അവസ്ഥ അവന് ഇല്ലാതാവണം അവന് സത്യസന്ധനായ ഒരു തിന്മകളില്ലാത്ത മറ്റുള്ളവനെ സ്നേഹിക്കുന്ന ഒരു നല്ല മനുഷ്യനായാല് തീര്ച്ചയായും അവന് തന്നെ തോന്നും ഞാന് ഒരു നല്ല മനുഷ്യനാണ് എനിക്ക് പൊതുസമൂഹത്തില് നിൽക്കുവാന് പറ്റും എന്ന് അവന് തോന്നും തീര്ച്ചയായും അവന് ഒരു മരണമില്ലാത്ത അവസ്ഥയിലേക്ക് അവന് മറ്റുള്ളവന്റെ മുമ്പില് അടിയുറച്ച് മുഖത്തോടു മുഖം നോക്കി നില്ക്കുവാന് കണ്ണില് കണ്ണില് നോക്കി നില്ക്കുവാന് അവന് തല ഉയര്ത്തിപ്പിടിക്കുവാന് അവന് സാധിക്കും അത് തന്നെയാണ് അവന്റെ മരണമില്ലാത്ത അവസ്ഥ ഞാന് കണ്ട ഈ മത ശ്ലോകം എന്നെ തീര്ച്ചയായും സ്വാധീനിച്ചിട്ടുണ്ട് തമസോമാ ജ്യോതിര്ഗമയ അസതോമാ സദ്ഗമയ മൃത്യോർമാ അമൃതം ഗമയ മനുഷ്യനെ പാപമാകുന്ന അന്ധകാരത്തില് നിന്നും നിത്യ പ്രകാശത്തിലേക്ക് നയിച്ച നയിക്കുവാന് കെല്പ്പുള്ള ഈ വചനങ്ങള് ഈ ശ്ലോകങ്ങള് മനുഷ്യന് മനുഷ്യന് മാറ്റങ്ങൾ ഉണ്ടാകുവാന് മനുഷ്യഹൃദയത്തെ ചലിപ്പിക്കുവാന് മനുഷ്യന് മനുഷ്യനെ മനുഷ്യൻ ആക്കുവാന് സാധിക്കുന്നത് തന്നെയാണ് എന്ന ഉറച്ച ബോധ്യത്തോടെയാണ് ഞാന് ഈ ശ്ലോകം ഇവിടെ പറയുന്നത് യഥാ പിതാ തഥാ പുത്രാ പിതാവിനെ പോലെ തന്നെ പുത്രനുമാകും അതായത് നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെ പരിശീലിപ്പിക്കുന്നുവോ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ തലമുറയും വരുന്നത് പുതിയ തലമുറയും ഉണ്ടാവുന്നത് ഈ ശ്ലോകങ്ങളൊക്കെയും നമ്മുടെ കുഞ്ഞുങ്ങള്ക്ക് പറഞ്ഞു കൊടുക്കുവാന് അവരുടെ ഹൃത്തടത്തെ ഉണര്ത്തുവാന് നമുക്ക് സാധിക്കണം എന്ന് ഈ അവസരത്തില് ഞാന് ആശംസിക്കുകയാണ്